ഹലോ ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്കൂളിലേക്ക് സ്വാഗതം

അ ഓക്കേ ഓക്കേ സംസാരിച്ചോളു അഡ്മിഷൻ എടുക്കാൻ ആയിരുന്നു അല്ലേ അ ഏതൊക്കെ സ്റ്റാൻഡേർഡിലേക്ക് ആണ് അ എൽ കെ ജി ആ ഓക്കേ നമ്മുടെ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ഇരുപത്തി അയ്യായിരം രൂപയാണ് വരുന്നത് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് മന്തിലി അയ്യായിരം രൂപ വെച്ചിട്ടാണ് അതിൽ എൽ കെ ജി സ്റുഡൻറ്റിന് നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റിന് നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല അത് നിങ്ങൾ വീട്ടിൽ നിന്ന് റെഡി ആക്കി കൊടുത്ത് വിടേണ്ടതാണ് യൂണിഫോമും കാര്യങ്ങളും ഒക്കെ എക്സ്ട്രാ വരുന്നതാണ് ബുക്സിന്റെയൊക്കെ ഫീ ഈ ഫീസിൽ ഉൾപ്പെടുന്നതല്ല അത് എക്സ്ട്രാ ആണ് പിന്നെ വാഹനസൗകര്യം വാഹനത്തിന് നമ്മള് മന്തിലി ആയിരം രൂപ വെച്ച് അടച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ ആ ടൗൺ പരിധിയിൽ ഉള്ള ആൾ ആണോ അ അ അപ്പോൾ ആ പരിധിൽ ആയതുകൊണ്ടാണ് ആയിരം രൂപ വണ്ടി കൂലി വരുന്നത് പിന്നെ നമ്മൾ കിലോമീറ്റർ നോക്കിയിട്ടാണ് റെൻറ്റ് ഈടാക്കുക അ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മാമിന് അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എൽ കെ ജി സ്റുഡൻറ്റ്സിന് ഒരു പതിനഞ്ച് പേർക്ക് ഒരു ടീച്ചർ എന്ന കണക്കിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എൽ കെ ജി സ്റ്റുഡൻറ്റിന് പിന്നെ അവർക്ക് നന്നായിട്ട് ലാങ്ക്വേജ് കൈകാര്യം ചെയ്യാനും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് പിന്നെ എൽ കെ ജി സ്റുഡൻറ്റ്സിന് നമ്മൾ ഇപ്പോൾ എഴുത്ത് കാര്യമായിട്ട് കൊടുക്കുന്നില്ല അ അത് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക അതെ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആയിരിക്കും ഓക്കേ താങ്ക്യൂ